എ പി ജെ അബ്ദുൾക്കലാമിന്റെ അഗ്നിച്ചിറകുകളെന്ന പുസ്തകം വിങ്സ് ഓഫ് എയർ അത് ഞാൻ വായിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പുള്ളിയുടെ ജീവിതം ചെറുതിലേ മുതലുള്ള ജീവിതം അ മൊത്തവും അതിനകത്ത് പുള്ളി അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പുള്ളി കുഞ്ഞിലേ കാലത്ത് അനുഭവിച്ചതും പിന്നെ യൗവനത്തിൽ അനുഭവിച്ചതും ജോലിക്ക് വേണ്ടി നടന്നതും അ ജോലി സമയത്ത് പുള്ളിക്കൊരു റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് അത് സൈക്കിളിൽ കൊണ്ടു പോയി വച്ചു പരീഷ്ണങ്ങൾ നടത്തിയതും നല്ല ഒരു അനുഭവം തോന്നിയിട്ടുണ്ട് അബ്ദുൽ കലാമിന്റെ ആ പുസ്തകത്തെ കുറിച്ച് വായിക്കുമ്പം ഒത്തിരിയേറെ ബഹുമാനവും അങ്ങേരൂടെ ജീവിത സാഹചര്യങ്ങളുടെ ഇതിൽ എത്രയോ ഇടുങ്ങിയ സാഹചര്യങ്ങളിൽ കൂടെ ജീവിച്ചിട്ടും ആ അങ്ങേരുടെ ഉയർച്ചയ്ക്ക് കാരണമായതോർത്ത് അഭിമാനവും തോബന്നിയിട്ടുണ്ട് ആ വ്യക്തിയോട് വളരെ നല്ല ഒരു ഇതാണ് ആ പുസ്തകത്തിൽ വായിച്ചാൽ നമുക്കും നല്ല ഒരൂ പോസിറ്റീവ് ചിന്തകളാണ് ആ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത് പുള്ളിയുടെ ഓരോ വരികളിലൂടെയും പുള്ളി അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസിലാക്കാനായിട്ട് സാധിക്കും ഒരൂ ഒരു ഒന്നും അറിയാമ്മേലാത്ത ഒരാൾക്കും അത് വായിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആകാനും എവിടെ എങ്കിലുമൊക്കെ ചെന്നെത്താനും ഉള്ള ഒരു പ്രചോധനം ആ പുസ്തകത്തിൽ നിന്നും ലഭിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ഒരൂ ഇടിങ്ങിയ ജീവിത സാഹചര്യങ്ങളിൽ കൂടി വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടി ഒത്തിരിപ്പേര് കളിയാക്കി ഇതെല്ലാം സൈക്കിളിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വച്ചു കെട്ടിക്കൊണ്ടു പോകുമ്പോൾ ആൾക്കാർ കളിയാക്കും ഇത് എവിടേ പോകുന്നത് റോക്കറ്റ് എവടെക്കൊണ്ട് വയ്ക്കാനാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് കാണുമ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു തമാശ രൂപേണ തോന്നുമെങ്കിലും പുള്ളിയുടെ ആ ഒരു ആത്മാർത്ഥതയും അതിനോടുള്ള അർപ്പണ മനോഭാവവുമാണ് പുള്ളിയെ ജീവിതത്തി ലെ ഇത്രയും പടികൾ ഇന്ത്യയിലെ ഒരു പ്രസിഡൻ്റ് എന്ന ഒരു പദവി വരെ പുള്ളി ഉയരാൻ കാരണം പുള്ളിയുടെ കുഞ്ഞിലേയുള്ള ആ ജീവിതത്തിന്റെ അർപ്പണ മനോഭാവവും ആ ജീവിത സാഹചര്യവുമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം